പേര് പവിത്ര വിജയകുമാർ പവിത്ര വിജയകുമാർ ഇവിടെ വിജയ ഹയർ സെക്കൻഡറി സ്കൂൾ ഐ ടി ക്ക് അതിനകത്ത് ഫുള്ള് തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ പെർസെന്റജ് ബെയ്സ്ഡ് അ ആ ഉണ്ടായിരുന്നു അ ഇപ്പോൾ എവിടെ ഒക്കെയാണ് ഇതിപ്പം കോഴ്സുകൾ അവൈലബിളായിട്ട് വന്നേക്കുന്നത് ബാംഗ്ലൂര് ഏതൊക്കെ കോഴ്സുകളാണ് ഐടിയായിട്ട് ബന്ധപെട്ട് വരുന്നത് ടെക്നോളജി കാര്യങ്ങൾ തന്നെ

ബാംഗ്ലൂർ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്

ലോൺ ആണ് നോക്കുന്നതെങ്കിൽ നമുക്കപ്പോൾ ലോൺ അടച്ച് തീർക്കാൻ ഒക്കെ എത്ര ഇത് വരും കാലഘട്ടം

അതൊരു അത്യാവശ്യം നല്ല ലേറ്റ് ആവില്ലേ ഓക്കെ നമുക്ക് ലോൺ ആയിട്ട് വേണ്ട നമുക്ക് അല്ലാണ്ട് തന്നെ അടക്കാം അ അ ഓക്കെ ഓക്കെ താങ്ക്യൂ ഓക്കെ താങ്ക്യൂ